ആ നമ്മുടെ കമ്മ്യൂണിറ്റീൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ട്രൂപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അന്ന് വെച്ച് കഴിഞ്ഞാൽ ശിലമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമ് ഉണ്ട് അപ്പം ലേഡീസിന് ഇപ്പം കൈകൊട്ടി കളി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇപ്പം കേരളത്തിൽ നല്ല ഫേമസ ആയിട്ട് വരുന്ന ടൈമ് ആണ് അപ്പം അങ്ങനെ ഒരു ട്രൂപ്പ് ഒക്കെ തുടങ്ങി ഇവർ കുറച്ച് അപ്പം ഒരു പ്ലസ് വൺ നോട്ടിട്ട് ഒരു കുറച്ച് വലിയ വലിയ ചേച്ചിമാരും പ്ലസ് വൺ തൊട്ടിട്ടുള്ള എല്ലാ കുട്ടികളടക്കം ഇവർ ഒരു ഏഴ് എട്ട് ഒൻപത് പേരുണ്ട് അപ്പം ഇവർ വലിയ ട്രൂപ്പ് ഒക്കെ തുടങ്ങി ബാമ്പ സെറ്റപ്പിൽ ഇപ്പം അമ്പലങ്ങളിലൊക്കെ പോകുക പരിപാടി അവതരിപ്പിക്കുക അങ്ങനെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഇപ്പം ഇപ്പം നമ്മൾ ആയിട്ട് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് തുടങ്ങിയത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൽ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വലിയ പരിപാടികളോ കാര്യങ്ങളൊന്നും നേതൃത്വത്തിൽ ഇന്ന ഒരു പാർട്ടീൻ്റെ നേതൃത്വത്തിലോ ഇന്ന ആൾക്കാർ നേതൃത്വത്തിലോ അങ്ങനെ തുടങ്ങാനും ഒന്ന് ഇവിടെ ഇവിടെ കഴിഞ്ഞിട്ടില്ല എവിടെ വച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒന്നാമത് ഇവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങനെ ആയതു കൊണ്ടാണോ എന്നറിയില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് അത് മതി ജനങ്ങൾ അതിൽ കംഫേർട്ട് ആണ് എന്നുള്ള രീതിയ്ക്കാണ് നിൽക്കുന്നത്